എൻ്റെ നാട്ടിൽ വിനോദസഞ്ചാരികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരാഗതമായ ഒരു സ്പോർട്സുണ്ട് വ വടം വലി ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം എല്ലാവരും കൂടുതലായിട്ട് എപ്പോഴും എപ്പോഴും എപ്പോഴുമെന്ന് വെച്ചാൽ പല പല ആഘോഷങ്ങൾക്കും നിങ്ങൾ കളിക്കാറുള്ള ഉൾപ്പെടുത്താറുള്ള ഒരു ഗെയിമാണ് സ് വടം വലി എന്ന് പറഞ്ഞാൽ വടം വലി ഞങ്ങളുടെ അവിടെ പ്രായം അന്യേ എല്ലാവരും തന്നെ വടം വലിയിൽ പങ്കെടുക്കാറുണ്ട് കുട്ടികൾ കുട്ടികൾ പങ്കെടുക്കും വിവാഹിതരായ പെൺകുട്ടികൾ കുട്ടികൾ അങ്ങനെ എല്ലാവരും തന്നെ വടം വലിയിൽ പങ്കെടുക്കാറുണ്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽത്തന്നെ ആണെങ്കിലും ഓണത്തിനായാലും ക്രിസ്മസിനായാലും വിഷുവിനായാലും വടങ്ങലി വടം വലീന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ നാട്ടിൽ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടെയാണ് വടം വലി ഇപ്പം ഇപ്പം ഞങ്ങളുടെ ആണെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ എൻ്റെ എൻ്റെ അസോസിയെ ഞങ്ങളുടെ അസോസിയേഷനിൽ എപ്പോഴും തന്നെ എല്ലാം എല്ലാ എല്ലാം ഉത്സവങ്ങൾ ഉൽസവങ്ങളല്ല എല്ലാ പൊതുവായ വിഷു ഓണം അങ്ങനുള്ള പരിപാടികൾ പരിപാടികൾ വെക്കാറുണ്ട് ഞങ്ങളുടെ അസോസിയേഷനിൽ അപ്പം ഞങ്ങൾ വടം വലി ഉൾപ്പെടുത്താറുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു രണ്ട് വർഷം മുൻപുള്ള വട രണ്ട് വർഷം മുൻപുള്ള ഒരു വടം വലിയിൽ ഞങ്ങൾക്ക് ഞങ്ങളും ഞാൻ ഞാൻ ഉൾപ്പെട്ടിരുന്ന എൻ്റെ ഒരു എൻ്റെ ടീമിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മത്സരിച്ചത് അവിടുത്തെ ചേട്ടന്മാരും ആയിട്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചാൽ ഓണം സെലിബ്രേഷൻ അന്ന് അന്ന് ഒരോണം ആയിരുന്നു ഓണം സെലിബ്രേഷനും ബാക്കി ഗെയിംസ് കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു വടം വലി മാത്രമല്ല മെഴുക് തിരി കത്തിച്ചോട്ടം കസേര കളി കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു അമ്മു അമ്മമാരുടേം കുട്ടികൾടേം എല്ലാരുടേം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റിലാണ് വടം വലി വെച്ചത് കാരണം വടം വലീന്ന് പറയുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം എനർജി വേണം ഇപ്പം കസേര കളിയൊക്കെ ആണേ ചുമ്മാ വട്ടം കറങ്ങി വട്ടം കറങ്ങി ഓടിയാൽ മതി അതിപ്പോൾ മെഴുക് തിരി കത്തിച്ചോട്ടമാണെങ്കിലും അതേ സമയം കുളം കര അങ്ങനുള്ള എന്ത് ഗെയിം ആണെങ്കിലും നമുക്കധികം അധികം നമ്മൾ എനർജീടെ ആവശ്യമില്ല പക്ഷേ വടം വലീന്ന് പറഞ്ഞാൽ അങ്ങനല്ല നല്ല എനർജി വേണം കാരണം നമ്മൾ നമ്മുടെ സർവ്വ ശക്തിയും ഉപയോഗിച്ച് വേണം വടം വലിക്കാൻ അപ്പം നമ്മൾ വലിക്കുന്നതിൻ്റെ തന്നെ ഭയങ്കര എരട്ടിയായിട്ടുള്ള എനർജിയിലായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം വലിക്കുന്നത് അപ്പം അതനുസരിച്ച് എനർജി നമ്മൾ നമ്മൾ നമ്മൾ കൊടുത്താലെ നമുക്ക് ഫസ്റ്റ് കിട്ടത്തൊള്ളു അപ്പം ഞങ്ങൾ ഇപ്പം വടം വലി പൊതുവേ കളിക്കുമ്പോഴ്ത്തേക്കും ആദ്യം ഒരു റിഹേഴ്സൽ ഉണ്ടായി ഒരു ഇതുണ്ടായിരിക്കും ചുമ്മാ ചുമ്മാ കളിക്കുന്ന ഒരു കളിയുണ്ടായിരിക്കും അതിലിപ്പോൾ ഒരാള് ജയിക്കും മറ്റൊരാൾ തോറ്റ് പോവും അത് നമ്മൾ ചുമ്മാ ഒരെക്സാമ്പിള് ഒരുതായിട്ട് കളിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യഥാർത്ഥ മത്സരം തുടങ്ങുന്നത് ആദ്യം എന്താണ് വടം വലിക്ക് എപ്പോഴും രണ്ട് ടീമിൽ കറക്ട് ഈ ടീമിൽ പത്ത് പേരാണെങ്കിൽ ആ ടീമിലും പത്ത് പേര് മാത്രമേ വരാൻ പാടുള്ളു പിന്നെ ഒരിക്കലും എന്താ ഈ ടീമിൽ ഒൻപത് പേരും ആ ടീമിൽ പത്ത് പേരും വരാൻ പാടില്ല പിന്നെ ഞങ്ങളുടെ അവിടെന്ന് പറഞ്ഞാൽ ഓണത്തിന് പുറമേന്നുള്ള ആളുകൾ വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായിട്ട് വരാറുണ്ട് കാരണം ഞങ്ങടവിടെ കൂടുതലും ഹോം സ്റ്റേ ഞാൻ താമസിക്കുന്നത് കുമരകം ഭാഗത്താണ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ എണ്ണം അവിടെ ഭയങ്കര കൂടുതലാണ് ഇപ്പം എൻ്റെ ഞങ്ങളുടെ ആ ഗ്രാമത്ത് തന്നെ ഗ്രാമത്തിൽ തന്നെ കുറെ അധികം എന്താ വിനോദം ഹോം സ്റ്റേ നടത്തുന്ന ഞങ്ങളുടെ വീട്ടിൽ അടുത്തുള്ള എൻ്റെ ബന്ധുക്കളും ഒക്കെ തന്നെ എന്താണ് അവരുടെ ഒക്കെ മെയിൻ ഒരു ഇൻകംന്ന് പറഞ്ഞാൽ തന്നെ ഈ ഹോംസ്റ്റേയിലൂടെ ഒക്കെയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കുറേ അധികം വിനോദസഞ്ചാരികൾ അവിടെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കായിട്ടും കൂടെ അവർക്കിതൊക്കെ നാട്ടിൽ പൊ പുറം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഗെയിംസ് ഒന്നും ഇല്ലായിരിക്കുവല്ലോ അപ്പം അവർക്കിതൊക്കെ ഭയങ്കര കൗതുകവാണ് ഇങ്ങനെ ഈ വടം വലി കളിക്കുന്നതും വടം വലി കാണുന്നതും എല്ലാം എല്ലാം തന്നെ അവർക്ക് ഭയങ്കര ഇതാണ് കൂടുതലായിട്ട് വടം വലി കാരണം ഇത് ഭയങ്കരായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇടക്ക് ഒക്കെ തർക്കോക്കെ ഉണ്ടാവൂലോ അപ്പോൾ ഈ വിനോദസഞ്ചാരികൾ അതൊക്കെ നെ ഭയങ്കരായിട്ട് കൗതുകത്തോടെയാണ് അവർ വീക്ഷിക്കുന്നത് കാരണം അത്രോം നേരം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് നിക്കുന്നവരായിരിക്കും ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറി മൊഹോക്കെ മാറിപ്പോവുന്നത് അത്കൊണ്ട് തന്നെ ഇത് വി വിനോദസഞ്ചാരികളെ ഭയങ്കരായിട്ട് ആകർഷിക്കും ഞങ്ങളുടെ കുമരകം ഭാഗത്ത് കുറെ അധികം എപ്പോഴും എപ്പോഴും തന്നെ എന്താണ് വിനോദസഞ്ചാരികളെ സ സ എന്നാൽ നിരീക്ഷിക്കാനായി എത്താറുണ്ട് അവിടെ അപ്പോൾ വളരെ അധികം എന്താണ് അവർക്ക് അവർക്ക് അവരുടെ അവിടെ ഇങ്ങനത്തെ ഗെയിംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരിങ്ങനത്തെ ഗെയിംസിൽ ഭയങ്കരധികം കൗതുകത്തോടെ നോക്കിക്കാണും അപ്പം ഞങ്ങൾ വടം വലി കളിക്കുമ്പോഴ്ത്തേക്ക് എപ്പോഴും എന്താണ് ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നമ്മൾ കാരണം നമ്മുടെ ടീമിലുള്ള ആൾക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ ടീമിലുള്ള ആർക്കോ ഒന്നും വരരുതെന്നാണ് നമ്മൾ വിചാരിക്കാന്ന് എന്നാലും നമ്മുടെ മത്സരത്തിൻ്റെ ആവേശം മൂക്കുമ്പോഴ്ത്തേക്ക് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ഒരു ഒരു ഓണത്തിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആൻറ്റിമാറാർ ആൻറ്റിമാർ തമ്മിലുള്ള വടം വലി മത്സരത്തിൽ എല്ലാവരും തന്നെ ഓണം അല്ലെ എല്ലാവരും തന്നെ സെറ്റ് സാരി ആയിരിക്കും ഉടുത്തേക്കുന്നെ അപ്പം ഒരാൻറ്റീടെ ഒരാൻറ്റി ഭയങ്കര ബലമായിട്ട് വലിച്ചോണ്ട് ഇരുന്നപ്പോൾ ആ ആൻറ്റീടെ സാരിയിൽ ആ ആൻറ്റി കയറി ചവിട്ടി ആ ആൻറ്റീടെ സാരി ആൻറ്റി തന്നെ ചവിട്ടീട്ട് വീണു ആ ആൻറ്റി വീണപ്പോഴ്ത്തേക്ക് ബാക്കിൽ പുറകിലുള്ളവർക്ക് പിന്നെ വടം വലിക്കാൻ പറ്റിയില്ല അവരുടെ അങ്ങനെ ഗെയിം അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു അത് റദ്ദാക്കി കാരണം ആ ഒരാൻറ്റി വീണു അവർ ഓൾറെഡി പോയല്ലോ ഗെയിം ഔട്ടായിപ്പോയി അപ്പം അത് ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഭയങ്കരൊരിതായിരുന്നു കാരണം ആ ആൻറ്റി ഭയങ്കര ആക്റ്റീവ് ആയുള്ളൊരാൻറ്റി ആയിരുന്നു പക്ഷേ ആ ആൻറ്റി വീണ കൊണ്ട് അവരെ ടീം പിന്നെ കളിച്ചും ഇല്ല ഉം അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളുടെ മത്സരമുണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ബോയ്സും ഗേൾസും ആയിട്ടായിരുന്നു വടം വലി കളിച്ചത് അപ്പം ഞങ്ങൾ ഗേൾസ് ഗേൾസ് പത്ത് പേര് ബോയ്സ് പത്ത് പേര് ആയിരുന്നു പക്ഷേ എന്താന്നറിയത്തില്ല ബൊ ക ബൊ ഞങ്ങൾ ഗേൾസിനെ കാട്ടിലും ബോയ്സ് ആണ് കുറച്ചും കൂടെ വലുതെങ്കിലും ബോയ്സിനെ കാട്ടിലും ഭയങ്കര എനർജി ഞങ്ങൾക്കായതോണ്ട് തന്നെ ഞങ്ങളാണ് അന്ന് ആ വടം വലിയിൽ ജയിച്ചിരുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ വടം വലി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ വലിക്കുന്നത് കണ്ടപ്പോൾ ഈ വിനോദസഞ്ചാരികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അവരവിടെ ഭയങ്കര കൈ കൊട്ടും പിന്നെ ഭയങ്കര ആർപ്പ് വിളിയും അവരെ ക്യാമറയിൽ വീഡിയോ എടുക്കലും അങ്ങനെക്കെയാണ് അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷമായി കാരണം നമ്മൾ എപ്പോഴും ഈ വിനോദ വിനോദസഞ്ചാരികളെ നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുവാണെങ്കിലും അവരുടെ സന്തോഷംന്ന് പറയുന്നത് നമ്മടേം കൂടെ സന്തോഷം ആണല്ലോ കാരണം നമ്മുടെ നമ്മുടെ നാട്ടീന്നിപ്പോൾ കുറെ പേര് പുറത്ത് പോവുന്നുണ്ട് അപ്പം അവർ പുറത്ത് ചെന്ന് ഫ്രണ്ട്സിനോടും കുട്ടികളോടും ഒക്കെ എന്താ ഭയങ്കര നന്നായിട്ടാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ നമ്മളും ഇത് തന്നെ അല്ലെ പുറം രാജ്യത്തുള്ളവർ ഇവിടെ വരുമ്പം അവർക്കും നല്ലൊരെക്സ്പീരിയൻസ് കൊടുക്കാനല്ലേ നമ്മളും എപ്പോഴും ചിന്തിക്കാറ് അത്കൊണ്ട് തന്നെ അവർ ഭയങ്കര ഭയങ്കരായിട്ട് ആസ്വദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഫീലാണ് അത് കഴിഞ്ഞിട്ട് വടം വലി അപ്പോൾ അവർക്കും കളിക്കണമെന്ന് ഞങ്ങടെ കു അവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ അന്ന് ഏകദേശം ഒര് പത്തിരുപത് വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു അപ്പം അവർക്കിത് കാണണം അവർക്കിത് കളിക്കണമെന്ന് പറഞ്ഞ് അവർ അന്ന് അവർക്ക് കളിക്കണമെന്ന് അവർ ഒരു സജഷൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അസോസിയേഷനിലെ മെമ്പറ് പറഞ്ഞു എന്നാൽ നമുക്ക് വ ഒരു അവർ എത്രയോ പത്തിരുപത് പേരുണ്ടായിരുന്നു അപ്പോൾ അവരെ പത്ത് വീതം ടീമാക്കി ഭാര്യയും ഭർത്താവ് കപ്പിൾസ് ആയിരുന്നു ഏകദേശം എല്ലാവരും കപ്പിൾസ് ആയത് കൊണ്ട് തന്നെ ഓരോ ടീമിലും അഞ്ച് ഭാര്യയും അഞ്ച് ഭർത്താവും ഇപ്പർത്തെ ടീമിലും അഞ്ച് ഭാര്യയും അഞ്ച് ഭർത്താവും അന്നിട്ടവർ മത്സരം കളിക്കാൻ തുടങ്ങി അപ്പം ഇവർക്കിതൊക്കെ ഭയങ്കര കൗതുകല്ലേ ഇവരുടെ നാട്ടിൽ ഇങ്ങനത്തെക്കെ വടം വലിയോ മറ്റ് ഗെയിംസോ ഒന്നും ഇല്ലല്ലോ അവരൊക്കെ അവിടെ എന്താ ഷട്ടിലോ അങ്ങനത്തെ ഗെയിംസൊക്കെ ആയിരിക്കൂലോ കളിക്കുന്നെ ഇവിടെ വന്നിട്ടല്ലെ അവർ വടം വലി കാണുന്നത് അപ്പം ഇവർക്കതൊക്കെ ഭയങ്കര കൗതുകമായിട്ട് ഇവർ വടം പക്ഷേ ഇവർക്ക് നമ്മൾ പിടിക്കു നമ്മക്കറിയാം നമ്മൾക്കെങ്ങനെയാണ് വടം പിടിക്കേണ്ടത് അതിൻ്റെ ഒര് രീതിയൊക്കെ നമുക്കറിയാം പക്ഷേ അവർക്കറിയത്തില്ല വടം അവരുടെ കൈ കുറച്ചും കൂടെ സോഫ്റ്റാ കാരണം അവർ അങ്ങനെ കഷ്ടപ്പെടുത്തില്ലല്ലോ നമ്മൾ മലയാളികൾ അല്ലെ കൂടുതൽ കഷ്ടപ്പെടുന്നത് അവരങ്ങനെ കഷ്ടപ്പെടാറില്ല ഇല്ലാത്തോണ്ട് അവർക്ക് ആ വടം എങ്ങനെയാണ് വടത്തിന് ഓൾറെഡി ഭയങ്കര കട്ടിയല്ലെ അപ്പം അവർക്കത് എങ്ങനെയാണ് പിടിക്കേണ്ടേന്ന് അറിയത്തില്ലായിരുന്നു അപ്പോഴ്ത്തേക്ക് അവർക്ക് ആദ്യം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ പിടിപ്പിച്ച് കൊടുത്തു കയ്യിൽ വടം പിടിപ്പിച്ച് കൊടുത്ത് അവരെ കൊണ്ട് വലിപ്പിച്ചു അവർക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇവിടെ ഒരു കോടി രൂപ ലോട്ടറി അടിക്കുമ്പോൾ എങ്ങനെയാണോ സന്തോഷം വരുന്നത് അതുപോലെയാണ് അവർക്ക് വടം വലിയിൽ കളിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അവർക്ക് ഭ അതൊക്കെ അതെനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അവരുടെ സന്തോഷം അവരുടെ ചിരി അവരു അവരുടെ ഒരു ചെറിയ കാര്യത്തിന് പോലും അവരെത്രത്തോളം സന്തോഷിക്കുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ടാണ് തോന്നിയത് അപ്പം എനിക്ക് വടം വലീനെ കുറിച്ച് ഇത്രോം ആണ് പറയാനുള്ളത് ഒരോർത്തർക്കും ഓരോ നാട്ടിലും വടം വലി ഓരോരോ ഇതിലായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ വേറെ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക